നമ്മൾ കൂടുതൽ ഇപ്പോൾ കറി മിക്കവാറും മിക്ക കറികളിലും നമ്മൾ തേങ്ങ അരച്ച് ചേർക്കും അതായത് കല്ലിൽ അരച്ച് അതില് തേങ്ങയോടൊപ്പം തേങ്ങ ചിരകി കല്ലിൽ അരച്ച് അതില് നമ്മൾ മസാലക്കൂട്ടുകളായ ഇപ്പോൾ മല്ലി മുളക് പിന്നെ എന്താ പറയുക ഇഞ്ചി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അരച്ച് ചേർക്കുന്ന ഒരു രീതിയാണ് എൻ്റെ ഭക്ഷ അതായത് പാചകരീതി എന്ന് പറയുന്നത് അപ്പോൾ അരച്ച് ചേർക്കുന്നതിൻ്റെ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള സത്ത് നമുക്ക് ആ കറിയിലേക്ക് കൃത്യമായിട്ട് ഉൾകൊള്ളാൻ പറ്റും അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ആ കറിയിലേക്ക് മൊത്തമായും അപ്പോൾ അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള സത്ത് അതിൻ്റെ സ്വഭാവഗുണമായാലും അത് കൃത്യമായിട്ട് അതിൽ കിട്ടും ഇപ്പോൾ മല്ലി മുളക് മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഉപ്പ് എല്ലാ സാധനങ്ങളും ഇട്ട് കൃത്യമായിട്ട് കൂട്ടാക്കി അതിൽ നമ്മൾ മറ്റേ തേങ്ങ ചിരകിയിട്ട് അത് നമ്മുടെ അമ്മിക്കല്ലിൽ ഇട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അതിൻ്റെ ഒപ്പം ഇഞ്ചി കറിവേപ്പില മല്ലിത്തല പിന്നെ അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ ഉള്ളി ആയാലും ഏത് സാധനം ആണെങ്കിലും നമുക്ക് കല്ലിൽ അമ്മിക്കല്ലിൽ അരച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യം അത് എന്ന് വെച്ചാൽ പഴമക്കാരുടെ രീതിയാണ് സമയം കൂടുതലെടുക്കും പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ മിക്സിയിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ ഇട്ട് അരച്ചാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫേമസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഭക്ഷണം